ഇന്ത്യയിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലിപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതായത് പിന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ കാലാവസ്ഥയായിരിക്കയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലല്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലും പല ഇതായിരിക്കും അതായത് ഓരോ ജില്ലകളിലും പിന്നെ കാലാവസ്ഥ വ്യത്യാസമുണ്ടാകും അത്പോലെത്തന്നെ ജില്ലയിൽ ഓരോ സ്ഥലങ്ങളിലും കാലാവസ്ഥ വ്യത്യാസമുണ്ടാകും പിന്നങ്ങനെ കലാവസ്ഥകൾ നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ന കാലാവസ്ഥയെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ മഴ മഴയുണ്ടാകും വെയിലുണ്ടാകും മഞ്ഞു കാലമുണ്ടാകും അങ്ങനെയുള്ള പല കാലവസ്ഥയായിരിക്കും ചില സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൂടിയ ഒരു കലാവസ്ഥയായിരിക്കും ചില സ്ഥലത്ത് നല്ല വെയിൽ കാര്യങ്ങളൊക്കെയായിരിക്കും ചില സ്ഥലത്തെന്ന് വെച്ചാൽ മഞ്ഞു മൂടിയ ഒരു കാലാവസ്ഥയായിരിക്കും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥല നമുക്കൊരു കാലവസ്ഥയെന്നതിനെ നമുക്കതിനേ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്തെന്ന് പറയാണെങ്ങെ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല വെയിലാ ഭയങ്കര വെയിലായിരിക്കും ചില ചിലപ്പോൾ വേനൽകാലമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നല്ല മഴയുമായിരിക്കും അങ്ങനെ പല അതായത് അങ്ങനെ വ്യത്യാസപ്പെട്ട അതായത് വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കും അതാണ് മെയിനായിട്ടുള്ളൊരു ഒരു പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ